നോവയുടെ ഇസ്തിരി പെട്ടി വളരെ മോശമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അതിന് അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കോയില് ചെമ്പാണെന്ന് പറഞ്ഞിട്ടാണ് അവര് അതിൻ്റെ റിവ്യൂവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷെ നമ്മളിത് റിപ്പെയർ വന്നപ്പോൾ കൊണ്ടു പോയിട്ട് നേരെ ആക്കാൻ കൊടുത്തപ്പോൾ അതിനുള്ളില് അലുമിനിയത്തിൻ്റെ കേബിളിൻ്റെ മുകളില് ചേമ്പ് പൂശിയിരിക്കയാണ് വാങ്ങിച്ച് രണ്ടാഴ്ച്ച മാത്രം ഉപയോഗിക്കുമ്പഴേക്കും അത് ഓവർ ഹീറ്റായിട്ട് ഷോട്ട് കട്ടായി പോകുന്നു അതുപോലെ തന്നെ ഇടയ്ക്ക് എടക്ക് നമുക്ക് അതിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല വാങ്ങിച്ച് മൂന്ന് മാസം ആകുമ്പഴേക്കും അത് കേട് വന്നു അപ്പം നിങ്ങൾ ആരും ഇത് എടുക്കാതെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്